ഗുഡ് ആഫ്റ്റർനൂൺ മാം ആ ഞാൻ കെ ആർ മീരയുടെ ആരാച്ചാർ ബുക്ക് കുറേ ആയി വായിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ലൈബ്രററിയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വര് വന്നതാണ് ആണോ അങ്ങനെ ആണെങ്കിൽ തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ ഉണ്ടോ

ആണോ ഞാൻ കുറേ കാലം ആ ആ ഞങ്ങൾക്ക് ഒരുപാട് കാലമായി ഇതൊന്ന് വായിണം അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി ഒക്കെ ലഭ്യമാണ് പക്ഷെ എനിക്ക് എന്തോ പുസ്തകമായിട്ട് തന്നെ വായിക്കണം എന്ന് തോന്നി എല്ലാവരും പറഞ്ഞു നല്ല പുസ്തകമാണെന്ന് എന്താണ് മാമിൻ്റെ അഭിപ്രായം പുസ്തകത്തെ പറ്റി ആ വളരെ ഉപകാരം മാം മാം അങ്ങനെ ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് തിരിച്ച് കൊണ്ട് തരാൻ പറ്റുമെന്നും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ

ആ ആ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ പുസ്തകം വായിക്കണമെങ്കിൽ വേറെ എന്താണ് ഒരു മാർഗമുള്ളത് ഇവരെ വിളിക്കുകയല്ലാതെ ആ ആ ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കേണ്ടി വരും അല്ലേ അ ആ അപ്പോൾ ഈ ഓൺലൈൻ ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഏ പുസ്തകത്തിൻ്റെ വില കൂടുമോ ആ ആ മാമ് അങ്ങനെ പുസ്തകം ഓഡറ് ചെയ്യാറുണ്ടോ ലൈബ്രറിക്ക് ആ ആ

ഓക്കെ മാമ് ഞാൻ എന്നാൽ അങ്ങനെ എന്തെങ്കിലും വഴി നോക്കാം ആ ആ താങ്ക് യു മാമ് താങ്ക് യു ആ ആ ശരി ഞാൻ എന്നാൽ പുസ്തകം ഓഡറ് ചെയ്തോളാം ശരി